ബൈക്കോടിക്കുമ്പോള് ഓടിക്കാൻ തുടങ്ങുമ്പോള് ആദ്യം നമ്മളീ ബൈക്കിന്റെ ഫിറ്റ്നസ്സ് നോക്കും അതിനകത്തുള്ള എയര് കാര്യങ്ങള് പെട്രോള് ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ടേ പോകാറുള്ളു പക്ഷേ അതിൻ്റെതായിട്ടുള്ള ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ള ഡാക്കുമൻസെല്ലാം കൈയിലുണ്ടാവും ഡ്രൈവിങ് ലൈസെൻസ് വണ്ടിയുടെ ഫിറ്റ് ഫോർ സർട്ടിഫിക്കറ്റ് ഇൻഷൊറൻസ് ഇതെല്ലാം ഉണ്ടാവും അതൊക്കെ കയ്യിൽ അത് വച്ചിട്ടാണ് പോകുന്നത് പോയി നമ്മള് ബൈക്കോടിച്ചുകൊണ്ടിരിക്കുമ്പോള്ത്തന്നെ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ ബൈക്കുകള് വണ്ടികളും പോകും വരും അവര് എല്ലാം ഒരു ദൂരം കീപ്പ് ചെയ്തിട്ടാണ് നമ്മള് ബൈക്ക് ഓടിക്കാന് ഓടിച്ചില്ലങ്കിൽ നമ്മള് ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയങ്ങളില് ബ്രേക്ക് കിട്ടുകയൊന്നും ചെയ്യത്തില്ല അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോള് അത് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ പിന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് കീപ്പ് വളരെ പ്രധാനമാണ് വണ്ടിയായാലും ബൈക്കായലും ഏത് വാഹനമോടിച്ചാലും നമ്മളെപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ പോകാൻ പാടുള്ളു പോയിക്കഴിഞ്ഞ് നമ്മള്ക്ക് യഥാസ്ഥാനങ്ങളിലെത്തിയിട്ട് തിരിച്ചു വരാൻ സാധിക്കും രണ്ടാമത് നമ്മള് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലാവസ്ഥ മഴയുണ്ടാവാം അല്ലെങ്കിൽ വെയില് കൂടുതലുണ്ടാവാം അപ്പോള് ഇതിനുള്ള കാര്യങ്ങളെന്ന് വച്ചുഴിഞ്ഞാല് നമ്മള് ബൈക്കോടിക്കുമ്പോള് തുടങ്ങുമ്പോള്ത്തന്നെ നമ്മള് ഹെൽമറ്റ് പ്രത്യേകമായി വച്ചിട്ട് വേണം പോകാന് കാരണം എപ്പോഴും ആക്സിഡൻറ്റുണ്ടാവാം എപ്പോഴും തലയില് ആക്സിഡൻറ്റ് പറ്റിയിട്ട് മറ്റ് വണ്ടികൾ കൂട്ടിയിടിച്ച് പുറത്ത് വീഴാനുള്ള സാധ്യതകള് കാണും അപ്പോള് ഇത് വീണ് കഴിഞ്ഞാല് തലയ്ക്ക് ഇഞ്ച്വറി പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് പിന്നെ പെട്ടെന്ന് മരിച്ചുപോയെന്നൊക്കെ വരാം അപ്പോള് നമ്മളൊത്തിരി കതിര്കള് കരുതലെടുത്തിട്ടേ ഇതിന് മുതിരാവു പോകാവൂ എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ബൈക്കിന്റെ മെയ്ൻറ്റെനൻസ് മേയ്റ്റെനെൻസ്സ് നമ്മളെപ്പഴും പക്കയായിരിക്കണം ബ്രേക്ക് അതിന്റെ ഓയിൽ ചേഞ്ചിങ്ങ് അതിന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് കാറിന്റ കണ്ടീഷന് ഇതെല്ലം നല്ലതാക്കിയിട്ട് വേണം എപ്പോഴും നമ്മള് പോകാന് അപ്പോള് ഈ കര്ത്കളക്കെ കരുതലുകളൊക്കെ ചെയ്തിട്ട് വേണം നമ്മള് യാത്ര ചെയ്യാനും വണ്ടിയോടിച്ച് പോകാനും അപ്പോള് നമുക്ക് സമയാസമയങ്ങളില് പോയെത്താനും തിരിച്ച് വരാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് എന്റെ അഭിപ്രായം രേഖകളിത്രയൊക്കെയേ ഉള്ളു നമ്മുടെ ലൈസെൻസുണ്ടാകണം നമ്മുടെ കയ്യില് വണ്ടിയുടെ ഫിറ്റ്നസുണ്ടാവണം വണ്ടിയുടെ ഇൻഷൂറന്സുണ്ടാവണം വണ്ടിയുടെ ആർ സി ബുക്കിന്റെ കോപ്പി അല്ലങ്കിലാർസി ബുക്കുണ്ടാവണം ഇത്രയും കാര്യങ്ങള് ഇതിൻറ്റേതായിട്ടുള്ളെ വേണം വേറെ കാര്യങ്ങളൊന്നും വേണമെന്ന് ഉള്ള ഇത് അഭിപ്രായമെനിക്കില്ല ഇപ്പോള് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കില് നമുക്ക് പിന്നെ ട്രാഫിക്കിനെയും ആക്സിഡൻറ്റിനെയും എല്ലാം അഭിമുഖീകരിച്ച് തിരിച്ച് വീട്ടിലെത്താൻ സാധിക്കും ഓക്കേ ഇപ്പോള് വേറെ നമ്മളിപ്പോള് ഇവിടുന്ന് എറണാകുളം പോകണമെന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്ക് സമയമില്ല ഇടയ്ക്ക് ഇറങ്ങാനൊന്നും അപ്പോള് നമ്മളിവിടുന്നേ അതിന്റെ ഫ്യൂവലൊക്കെ എത്ര വേണമെന്നുവച്ചാല് അത് കരുതിക്കൊണ്ട് വേണം പോകാന് പോയിക്കഴിഞ്ഞ് നമ്മള് അതിന്റെ സമയാസമയങ്ങളില് അവിടെപ്പോയെത്തിയിട്ട് തിരിച്ചു വരാത്തക്ക രീതിയിലുള്ള പെട്രോളാണെങ്കില് അത് വേണം ഒഴിച്ചിട്ട് വേണം പോകാന് അല്ലെങ്കില് പിന്നെ വേറെ ഇടയ്ക്കു നിർത്തിയും സമയം പോകുകയുമൊക്കെ ചെയ്യേ ഓക്കേ